പണ്ടുകാലത്ത് ഇല്ലായിരുന്ന പുതിയ രീതിയെന്നു പറയുന്ന മെട്രോയാണ് അപ്പോൾ മെട്രോ ഉള്ള എറണാകുളത്ത് ഞാൻ താമസിച്ചിട്ടും മെട്രോയിൽ യാത്ര ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും അത് ജീവിതത്തിലെ ഒരുപാട് രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നു ഞാൻ മനസ്സിലാക്കുന്നു കാര്യം ഇത്രയും പെട്ടെന്ന് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്താൻ മെട്രോ സഹായകമാണ് ട്രെയിനിൽ ഞാൻ ഇന്നേവരെ എൻ്റെ ജീവിതത്തിൽ യാത്ര ചെയ്തിട്ടില്ല പക്ഷേ ട്രെയിൻ ഒരു വലിയ ഉപകാരമുള്ള ഒരു യാത്ര സംവിധാനമാണെന്നു ഞാൻ മനസ്സിലാക്കുന്നു കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത് എൻ എനിക്ക് രണ്ട് ടൂവീലറൊണ്ട് ആ സ്കൂട്ടിയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതെനിക്ക് വളരെയധികം ഉപയോഗപ്രദമാണ് എനിക്ക് എവിടെ പോണംന്ന് വിചാരിച്ചാലും ഉടനെ തന്നെ ആ വണ്ടിയെടുത്തോണ്ട് പൂവാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് ആ സ്വന്തമായിട്ടൊള്ള വണ്ടി എനിക്ക് നൽകുന്നുണ്ട് മാത്രമല്ല പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിനൊക്കെ ആശ്രയിക്കുമ്പോഴുണ്ടാകുന്ന പണചെ പ പണച്ചിലവുകൾ ഇപ്പോൾ ഓട്ടോയാണ് പിടിക്കുന്നെങ്കിൽ കുറച്ചു കൂടി പണച്ചിലവു വരും പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുമ്പോഴുള്ള സമയ ചിലവ് കുറയ്ക്കാനായിട്ട് എനിക്ക് സ്വന്തം വാഹനം ഉള്ളത് എന്നെ സഹായിച്ചിട്ടുണ്ട്